ഏട്ടാ ഇത് എത്ര നേരമായി ഏട്ടാ നമ്മൾ ട്രാഫിക്കില് കിടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു അര മുക്കാൽ മണിക്കൂര് ആയില്ലേ ഇതെന്താണ് നീങ്ങാത്തത് നമ്മൾ അവിടെ എത്തുമ്പോൾ എത്ര മണിയാവും ഒരു മണിക്കൂറോ എന്റെ ഏട്ടാ എനിക്ക് നാല് മണിയാവുമ്പോൾ അവിടെ എത്തണം ഏട്ടാ ഇപ്പം തന്നെ ദേ മൂന്നേ കാൽ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു മണിക്കൂറെന്ന് പറയുമ്പോൾ ഞാനവിടെ എത്തുമ്പോൾ എത്ര സമയമാവും ഇതാണെങ്കിൽ നീങ്ങുന്നുപോലുമില്ല

എന്റെ പൊന്നോ ഇത്രയും നേരം എടുക്കുവോ എന്റെ ഏട്ടാ നമുക്ക് വേറെ ഏതെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കൂ ഏട്ടാ ഇതെത്ര നേരമായി ഈ ട്രാഫിക്കില് കിടക്കാൻ തുടങ്ങിയിട്ട് നമുക്കൊരു ക്ഷമ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലേ ഈ ഏട്ടാ വേറെ ഏതെങ്കിലും വഴി ഉണ്ടോ നോക്ക് വേറെ മാപ്പിലോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുവോ വിളിച്ചിട്ട് ഏട്ടാ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഏട്ടാ എനിക്ക് നാല് മണിക്ക് എന്തായാലും എനിക്ക് എത്തിയേ പറ്റത്തുള്ളൂ ഒരു മണിക്കൂറൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നോ എനിക്ക് പറ്റില്ല വേറെ ഏത് വേറെ പോക്കറ്റ് റോഡ് വല്ലതും ഉണ്ടോ നോക്ക് ഏട്ടാ അത് പോക്കറ്റ് റോഡ് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്തിന് അവിടെ എത്തണം അല്ല അവിടെയും പോയിട്ട് ഇതുപോലെ ബ്ലോക്ക് അയി കിടക്കുവാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പം അവിടെ എത്തേണ്ടിടത്തുനിന്ന് തന്നെ എനിക്ക് ഇപ്പോൾ അഞ്ചു പ്രാവശ്യമായി എന്നെ വിളിക്കുന്നു ഏട്ടാ കേൾക്കുന്നില്ലേ ഫോൺ വരുന്നത് ഞാനിത് എവിടെയെത്തി എവിടെയെത്തി ചോദിക്കുമ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ ഞാനിരിക്കുന്നത് ഒരിഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടില്ല ചേട്ടന് മറ്റേ റൂട്ടിൽ പോവാൻ പറ്റും നല്ല റോഡ് ആണോ നമുക്ക് പെട്ടെന്ന് വണ്ടി ഓടിച്ച് എത്താൻ പറ്റുവോ സ്പീഡിൽ പോവണം ഏട്ടാ ഇത് മ സമയമിപ്പോൾ നമ്മൾ തെറ്റല്ലല്ലോ ട്രാഫിക്കില് കുടുങ്ങിയത് പക്ഷേ എനിക്ക് കറക്റ്റ് സമയത്തിന് എത്തേണ്ടെ ഒരു മണിക്കൂറൊക്കെ ഇനിയും ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും സമയമൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല പോട്ടെ ഒരു പത്തു മിനുറ്റ് എങ്ങനെയും നമുക്ക് വെയിറ്റ് ചെയ്യാം ഏട്ടാ ഏട്ടന് ആരോടെങ്കിലും ഒന്ന് ചോദിക്ക് അല്ലെങ്കിൽ മാപ്പിൽ നോക്ക് വേറെ ഏതെങ്കിലും റൂട്ട് ഉണ്ടോ എന്ന് പെട്ടെന്ന് പോവാന് പറ്റുന്ന വേറെ ഒരു വഴി ഉണ്ടെന്ന് ഞാനിങ്ങനെ വേറെ ഏതോ വഴി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നല്ലോ നമുക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ പോക്കറ്റ് റോഡ് എങ്ങാണ്ട് ആ ഏട്ടന് അറിയുന്ന വഴിയാണോ പെട്ടെന്ന് എത്തുവോ നമ്മൾ ഇനിയിപ്പം ഇപ്പം ട്രാഫിക്കായിട്ട് ഇവിടെ കിടക്കുന്നതിനേക്കാളും ഭേദം നടന്നു പോവുന്നതല്ലേ വേറെ വഴി കയറിയിട്ട് അവിടെയും ഇതുപോലെ എന്തെങ്കിലും കെണിപ്പ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി

ഇത് പറഞ്ഞിട്ട് എത്ര നേരമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് മനുഷ്യന് ക്ഷമ എന്ന് പറഞ്ഞിട്ട് സംഗതി ഇല്ലേ ക്ഷമയുടെ നെല്ലിപ്പലക നെല്ലിപ്പലക എന്ന് പറഞ്ഞിട്ടില്ലേ ഞാനിപ്പം അത് കണ്ടു മുക്കാൽ മണിക്കൂറുകൊണ്ട് ഇപ്പോൾ തന്നെ ദേ സമയം എത്രയായി മൂന്നര ആവാനായി നാല് മണിയാവുമ്പോൾ എനിക്ക് അവിടെ എത്തണം ഇനി ഒരു മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞാൽ ഞാനെപ്പോൾ എത്താനാണ് അഞ്ചു മണിയാവുമ്പോഴോ നാലര ആവുമ്പോഴോ എന്റെ ഏട്ടാ എനിക്ക് സമയം കളയാനില്ല എനിക്ക് എത്ര അത് ഞാൻ അല്ലെങ്കിൽ ബസിനു വല്ലതും പോയിക്കൂടെ എനിക്ക് വൈകുന്നേരം എപ്പോഴെങ്കിലും എത്തിയാൽ മതിയെന്ന് വെച്ചാൽ ടാക്സി ബുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് പോവേണ്ട ആവശ്യം ഉണ്ടോ ഇത് എന്റെ ഏട്ടാ നിങ്ങൾ ആരോടെങ്കിലും ചോദിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും പിന്നെ വഴി ഉണ്ടാവും ഉണ്ടല്ലോ നിങ്ങൾ വണ്ടി ഓട്ടിക്കുന്നതല്ലേ നിങ്ങൾക്ക് വഴിയെല്ലാം അറിയാമല്ലോ അല്ലെങ്കിൽ മാപ്പിൽ നോക്ക് ഉണ്ടോ വഴി ഇൻ വഴി ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആ ആ വഴി പോ ആ വഴി പോയാൽ നമ്മൾ മു അര മണിക്കൂറുകൊണ്ട് എത്തുവോ ഒരു അര മണിക്കൂറിന് മേൽ വേണ്ടിവരും അല്ലേ എന്നാലും സാരമില്ല ഒരു നാലേ കാലൊക്കെ ആവുമ്പോഴെങ്കിലും എന്നെ എത്തിക്കുവോ അതിൽ കൂടുതല് പറ്റില്ല ഏട്ടാ അയ്യേ നാലു മണിക്ക് അവിടെ കറക്റ്റ് എത്തണം പോട്ടെ നാലേ കാല് പത്ത് പതിനഞ്ച് മിനുട്ട് എങ്ങനെയും പിടിച്ച് നിൽക്കാം എന്നാൽ ആ വഴി പോയിക്കോ ഏട്ടാ ഉം ആ ഒന്ന് വേഗം നോക്ക് ഏട്ടാ പ്ലീസ് ഏട്ടാ വേറെ ഇപ്പം ട്രാഫിക്കില് കിടന്നിട്ട് ഓരോരുത്തർ ആ വഴി ഈ വഴിയെല്ലാം വണ്ടി നീങ്ങാന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വഴി പോകുമ്പോൾ ചിലപ്പോൾ തിരക്കായിരിക്കും ഇപ്പോൾ തന്നെ നീങ്ങുവാണെങ്കിൽ പെട്ടെന്നങ്ങ് എത്താമല്ലോ

ഇത് എന്തൊരു കഷ്ടവാണോ ആ പോവാം ഞാൻ ഇപ്പം അവരെ വിളിച്ചുപറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പം പറയും ഇനിം മുക്കാൽ മണിക്കൂറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഓട്ടിക്കും ശരി ഏട്ടാ വേഗം പോവാം എട്ടാ ഇച്ചിരി സ്പീഡിൽ പോയാലും കുഴപ്പമില്ല എനിക്ക് ആ സ എനിക്ക് നാല് മണി ആവുമ്പോൾ നാലേ കാലിനുള്ളിൽ എന്നെ അവിടെ എത്തിക്കണം എന്നെ എത്തിക്കേണ്ടത് ഏട്ടന്റെ പുറപ്പാ പുരിപ്പാണ് ആ ഏട്ടന് എന്നെ എത്തിച്ചേ പറ്റുള്ളൂ വേറെ അതിനകത്ത് വാക്കൊന്നുമില്ല ഏട്ടൻ എന്തായാലും ആ മറ്റേ റൂട്ടിലേക്ക് കയറിക്കോ നമുക്ക് വിടാം ഉം വിട്ടോ